ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പുതിയ വീട് വെച്ചതിന്റെ ശേഷമാണ് പൂന്തോട്ട പരിപാലനം തുടങ്ങിയത് ആദ്യത്തെ വീട് ഒരു ചെറിയ വീടായിരുന്നു അപ്പം മുറ്റത്തിൽ അധികം സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെടികളൊന്നും അധികം പരിപാലിച്ചിട്ടില്ല തുടങ്ങിരുന്നു അന്ന് പക്ഷേ അതിലേക്ക് അങ്ങോട്ട് ആഴ്ന്ന് ഇറങ്ങിയിട്ടില്ല പക്ഷെ പുതിയ വീട് വന്നപ്പോൾ എനിക്ക് ആ നല്ല വീടൊക്കെയായി ഇനി കുറച്ച് ചെടികളൊക്കെ എന്തായാലും വെച്ച് പിടിപ്പിക്കണം ആൾക്കാരൊക്കെ കാണുന്നതല്ലേ എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നോണ്ട് പൂന്തോട്ട പരിപാലനം തുടങ്ങി അങ്ങനെ ഞങ്ങൾ പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇതുണ്ട് എന്താണ് പറയുക ഇങ്ങനെ ചെടികളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഒരു കുറേശ്ശെ ചെടിയൊക്കെ മേടിച്ച് വന്ന് ഞാനും ഏട്ടനും കൂടെ എന്നിട്ട് അതൊക്കെ വെച്ചു ഇപ്പം ഒരുപാട് തോനെ ചെടിയായി കേട്ടോ മുറ്റത്തൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഞാൻ ദിവസവും വൈകുന്നേരം ഒരു മൂന്നര നാലു മണിയാകുമ്പോൾ ചെടി നനച്ച് കൊടുക്കും പിന്നെ മറ്റു പല ചെടികളും നടാൻ ശ്രമിക്കും പിന്നെ അതിന് ചുറ്റുള്ള കാടൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കും പിന്നെ വളം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ചാണക വെള്ളം തൽകാലം കുറേശ്ശേ കൊടുക്കുന്നുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിൻ ആയിട്ട് നമ്മൾ പുതുതായിട്ട് പുതിയ പുതിയ ചെടികൾ നടാനാണ് എപ്പോഴും ആഗ്രഹിക്കുക